ആ ചേട്ടനാണോ ഗൈഡ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് അപ്പോൾ ആ ഞാനിവിടെ നാട്ടിലിവിടെ ആദ്യമായിട്ടാണ് പാലക്കാട് ഫാമിലിയൊക്കെ ഡെൽഹിയിലാണ് അപ്പോൾ ചെറുപ്പം തൊട്ടെ അവിടെയായിരുന്നു ഇവിടെയിപ്പോൾ ഉൽസവങ്ങളെ ഉത്സവങ്ങളെപ്പറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രോപ്പർ നാട് പാലക്കാട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ അച്ഛനും അമ്മയുമൊക്കെ ഡൽഹിയിലാണ് അപ്പോൾ ചെറുപ്പം തൊട്ട് അവിടെയാണ് ഇപ്പോഴെനിക്കിവിടെ അവിടെ സെറ്റിൽഡ് ആണ് അപ്പോൾ അവിടെത്തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിലേക്ക് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണ് അപ്പൊൾ ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിൻ്റെ സീസണാണെന്നു കേട്ടു അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അപ്പോൾ അത് ഓ ആ ഓണവും വിഷുവും ഈ പൂജക്ക് അയിനെന്താണ് പ്രേത്യേകത ആ ആ ഓ വലിയ ഉത്സവം ആണല്ലേ പാലക്കാട് അത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഓ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം ആണല്ലേ ഇതു എപ്പോഴാണ് ഏതു ഏതു മാസത്തിലാണ് നടക്കുന്നത് ഓ ഇനിയിപ്പോൾ ആ സമയത്തു വന്നാലാണ് ആ വേല കാണാൻ പറ്റുളളുവല്ലേ

നമ്മൾ നമ്മളുടെ പാലക്കാടുള്ള ഫെസ്റ്റിവലിനെ പറ്റിയൊന്നു പറയാമോ അതായതു ഫേമസ് ആയിട്ടുള്ളത് പാലക്കാടുള്ള ഫുളള് ഒന്നു കാണാലോ നെമ്മാറ വേല കേട്ടിട്ടില്ല അതിനെപ്പറ്റിയൊന്നു പറയാമോ ഉത്രാളിക്കാവ് ആ അത് കേട്ടിട്ടില്ല അതിനെന്താണ് പ്രത്യേകത ഓ ആ എല്ലാത്തിലും ഓ എല്ലാ ആഘോഷവും അല്ല എല്ലാ ആഘോഷവും ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലേ പോറാട്ടം കളീനെപ്പറ്റി കേട്ടിട്ടുണ്ട് അത് ഈ പാലക്കാടിൻ്റെ ഒരു ഫേമസ് സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട് അത് നമുക്ക് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു മാസം വെക്കേഷനാണുള്ളത് ആപ്പോൾ ഈ ഒക്ടോബറിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒക്ടോബറിൽ നമ്മക്കിപ്പോൾ എവിടെയൊക്കെയാ വിസിറ്റ് ചെയ്യാൻ പറ്റുക ഈ ഫെസ്റ്റിവൽ

ഓ അല്ല ലോങ്ങ് അല്ല നമുക്ക് പാലക്കാടുള്ളത്തിപ്പോൾ പൂജ മാത്രമേയുള്ളുവല്ലേ ഇവിടെ കൊടുന്നലപ്പുള്ളി കല്പാത്തി ആ ഒക്കെ ഓക്കെ അപ്പോൾ പൂജ പൂജ ഹോളിഡേയ്ക്കു നമുക്ക് പോവാമെന്നുള്ള ഒരു പ്ലാൻ നോക്കാം അതിനെപ്പറ്റി എപ്പോഴാണ് അതെ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്ന് പറയാമോ ഓക്കേ ഓ ഒക്കെ ഓക്കെ എന്നാൽ പിന്നെയങ്ങനെ ചെയ്യാം ഓക്കെ എന്നാൽ ശരി വി അല്ലല്ല ഫാമിലിയില്ല ഞനൊറ്റയ്ക്കാണ് ഓക്കെ ഓക്കെ ശരിയെന്നാൽ അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യാം ഇനി എൻ്റെ ഇതിനനുസരിച്ചു ഓക്കെ ഓക്കെ ഇത് ഏകദേശം ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് ഓക്കെ എന്നാൽ അപ്പോൾ ഞാൻ എന്നാൽ കോൺടാക്ട് ചെയ്തിട്ട് ഓക്കെ ഓക്കെ താങ്ക് യൂ